ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒക്കെ എന്ന് കൃഷിയും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കുറഞ്ഞു പിന്നെ എന്താ പറയുക കൂടുതലും കുടിവെള്ളം ഒന്നും നമുക്ക് അങ്ങനെ ശുദ്ധമായിട്ട് കിട്ടണില്ല കടലിലെ നിയറെസ്റ് കടലോക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കൃഷിയിലോക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ പറയുക സമുദ്രനിരപ്പ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഏത് നിമിഷവും വെള്ളത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം കു കുടിക്കാൻ ഉള്ള വെള്ളം കുറവാണെങ്കിലും കടലിലൊക്കെ ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാമ്പത്തിക പരമായിട്ടും ഇപ്പോൾ കോഴിക്കോട് ജില്ലാ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ആൾമോസ്റ് ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളൊക്കെ നികത്തി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പോൾ കുറെ ആൾക്കാർക്ക് ഒക്കെ തൊഴിൽ അവസരങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർക്ക് അത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വരുന്നതും ഉണ്ടാകുന്നതും സമൂഹത്തിൽ ഇപ്പോൾ എന്താ പറയുക പൊലൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലാണ്ട് വരുന്നുണ്ട് കൂടുതലും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ വസ്തുക്കൾക്ക് തന്നെ വില വർധിച്ചുകൊണ്ടിരിക്കുവാണ് കോഴിക്കോട് ജില്ലയിൽ ആൾമോസ്റ്റ് എല്ലാ ഇടതും തന്നെ വില വർദ്ധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് പരിഹരിക്കാൻ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വീട്ടിൽ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടു കൂടി ആൾക്കാർക്ക് ഒക്കെ നല്ല ഫുഡ് കഴിക്കാനും അങ്ങനെ ഒക്കെ പറ്റും അതൊക്കെ എന്താ പറയുക കോഴിക്കോട് ജില്ലയില് ആളുകൾക്ക് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആൾമോസ്റ്റ് നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക അത്യാവശ്യം നല്ലവണ്ണം കൃഷി കാര്യങ്ങള് ആൾമോസ്റ്റ് നല്ല രീതിക്ക് ജീവിക്കാൻ അതായത് ഇത്രത്തേക്ക് ഇതുപോലെ ജോലി കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം